നീണ്ട ബൈക്ക് യാത്രക്ക് ഏറ്റവും ആദ്യം വണ്ടി കണ്ടീഷൻ ചെയ്യുകയെന്നുള്ളതാണ് വണ്ടി റിപ്പെയറോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടയർ പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ്ങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയുടെ കണ്ടീഷൻ ഉറപ്പ് വരുത്തുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം രണ്ടാമത് തെയ്യാറെടുപ്പെന്ന നിലക്ക് ഭക്ഷണങ്ങൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കെ വണ്ടിയിൽ കരുതുക മൂന്നാമത് കാലാവസ്ഥ ഈ പ്രദേശത്തുള്ള കാലാവസ്ഥയായിരിക്കില്ല തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള കാലാവസ്ഥ അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ആ കാലാവസ്ഥയെ മറി കടക്കുന്നതിനാവശ്യമായിട്ടുള്ള മുൻകരുതലെന്ന നിലക്ക് ജാക്കറ്റുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കരുതുക ആവശ്യമായിട്ടുള്ള വെള്ളം ഭക്ഷണം ഒക്കെ നീണ്ട സമയത്ത് കേടു കൂടാതെ നീണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതുക ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഫ്യുവൽ വണ്ടിയിലുണ്ടോ വണ്ടിയിൽ നിറക്കുകയും ആവശ്യമായിട്ടുള്ളത് കരുതുകയും ചെയ്യാം